ബൈക്കിംഗ് സംഘങ്ങളുമായിട്ട് ബന്ധപ്പെടാനും മറ്റു റൈഡർമാരെ കണ്ടുമുട്ടാനുമുള്ള ഏറ്റവും നല്ല വഴി എന്നു പറയുന്നത് നമ്മൾ എവിടെ നിന്നാണോ വാഹനം എടുക്കുന്നത് അതായത് ഏത് ഷോറൂമിൽ നിന്നാണോ അല്ലെങ്കിൽ ഏത് ബ്രാൻഡിൽ നിന്നാണോ എടുക്കുന്നത് ആ കമ്പനിയുമായിട്ട് നമ്മൾ എന്തു ചെയ്യുക ബന്ധപ്പെടുക അങ്ങനെയാണെങ്കിൽ അവരുടേതായിട്ടുള്ള ബൈക്കേഴ്സിൻ്റെ ഓരോ ക്ലബ്ബുകൾ ഉണ്ട് ആ ക്ലബ്ബിലേക്ക് നമ്മളെ ആഡ് ചെയ്യുകയും അതുപോലെ തന്നെ അവരുടെ ഓരോ ഈവൻസ് പ്രോഗ്രാമുകളിലേക്ക് നമ്മളെ ക്ഷണിക്കപ്പെടുകയും അതുപോലെ തന്നെ അവരുടേതായിട്ടുള്ള ട്രാവൽസ് ട്രാവലിന് അതായത് യാത്രകൾക്ക് നമ്മളെ ചേർക്കുകയും ചെയ്യുന്നതായിരിക്കും ഇതുവഴി നമുക്ക് കൂടുതൽ ബൈക്കേഴ്സിനെ അതായത് ബൈക്ക് ഓടിക്കുന്ന സംഘങ്ങളുമായി ബന്ധപ്പെടാനും മറ്റു റൈഡർമാരെ കണ്ടുമുട്ടാനും അതുപോലെ തന്നെ ഇതിൽ എക്സ്പീരിയൻസ് ഉള്ളവരുമായിട്ട് സംഭാഷണം നടത്താനും അവരുടെ കാഴ്ചകളും അവരുടെ വീക്ഷണങ്ങളും എല്ലാം നമുക്ക് അറിയുവാനും സാധിക്കുന്നതായിരിക്കും എനിക്ക് കൂടുതലായിട്ടും ഇഷ്ടപ്പെടുന്നത് ഒറ്റയ്ക്ക് പോകുന്നത് തന്നെയാണ് കാരണം ഇതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറകിൽ ഇരിക്കുന്ന ഒരാളുടെ ഒപ്പീനിയൻ ചോദിക്കേണ്ടതായിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളും മറ്റും നമ്മൾ അംഗീകരിക്കേണ്ടതായിട്ടോ അല്ലെങ്കിൽ അവരുടെ ഇത് നമ്മൾ സ്വീകരിക്കേണ്ടതായിട്ടോ വരുന്നില്ല നമുക്ക് എന്ത് തോന്നുന്നു അതുപോലെ നമുക്ക് ചെയ്യാവുന്നതാണ് ഇപ്പോൾ നമുക്ക് ഇഷ്ടം ഒറ്റയ്ക്ക് പോകുവാനാണ് നമുക്ക് ഇന്ന സ്ഥലത്ത് പോകണം എന്ന ഒരു ഉചിതമായ തീരുമാനം നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് പോകാവുന്നതാണ് അതേപോലെ തന്നെ പുറകിലുള്ള ഒരാളുടെ ഒപ്പീനിയൻ നമുക്ക് ചോദിക്കേണ്ടതായിട്ട് വരുന്നില്ല മെയിനായിട്ട് നമ്മുടെ ഇഷ്ടത്തിന് അനുസരിച്ചു പോകാവുന്നതാണ് ഇപ്പോൾ ഒരു കമ്പാരിയൻ കൂടെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയനും കൂടി നമ്മൾ ചോദിക്കേണ്ടതായിട്ട് വരുന്നതായിരിക്കും ഇതിലെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അവസരം വരുന്നതല്ല കാരണം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് പോവാം എവിടെ വേണമെങ്കിലും പോവാം എങ്ങനെ വേണമെങ്കിലും നടക്കാം കാരണം നമ്മൾ പോകുന്ന യാത്ര നമുക്ക് പൂർണ്ണമായിട്ടും നമ്മൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നതായിരിക്കും